ദിവസവും രാവിലെ ഒരു അഞ്ച് മണിക്കെണീറ്റ് ഒരു അഞ്ചര വരെ നമ്മള് നോർമൽ വർക്കൊട്ടൊക്കെ ചെയ്തതിന്റെശേഷമാണ് ഞാന് ഓടാന് ഇറങ്ങല് ഏകദേശം എല്ലാ ദിവസവും ഒര് അഞ്ച് കിലോമീറ്ററിൻ്റെയടുത്ത് ഓടലുണ്ട് ചില ദിവസങ്ങളിലത് മൂന്ന് കിലോമീറ്ററൊക്കെയായിട്ട് ചുരുക്കാറുമുണ്ട് ഈ ഓടുന്ന ദിവസം നമ്മള്ക്കൊരു പ്രത്യേക എനർജിയും പിന്നെ എന്താ ഒരു ആശ്വാസവും ആരോഗ്യപരമായിട്ടുതന്നെ ഒരു ഉണർവൊക്കെ തോന്നാറുണ്ട് ഈ ഓടാത്ത ദിസങ്ങളിലൊക്ക ഉറങ്ങി ഉറങ്ങി പിന്നെപ്പഴും ജോലിക്ക് പോകുമ്പോഴതിൻ്റെതായ ബുദ്ധിമുട്ടുകള് തോന്നാറുണ്ട് കുറേക്കാലം ഈ ഓട്ടം നിർത്തിയതിൻ്റെ ശേഷം നമുക്ക് പെട്ടെന്ന് എവിടെ കിടന്നാലും ഉറങ്ങുന്ന ഒരവസ്ഥ അതായത് ഒരു ജോലിയില് കൃത്യമായി ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുക പക്ഷേ ഓട്ടം തുടങ്ങിയതിനുശേഷം മനസികമായിട്ടാണെങ്കിലും പിന്നെ ശാരീരികമായിട്ടാണെന്നുണ്ടെങ്കിലും കുറേ മാറ്റങ്ങള് വന്നിട്ടുണ്ട് ഇപ്പോള് ഫിറ്റ്നസാണെന്നുണ്ടെങ്കില് കുറച്ച് നടക്കുമ്പോഴത്തേന് കിതയ്ക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഡെയ്ലി ഓടുന്നതിലൂടെ മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ കോണിപ്പടികളൊക്കെ ഒന്ന് രണ്ട് കോണിപ്പടികളൊക്കെ ചവിട്ടാനായി ഓടുന്നതിൻ്റെ മുൻപ് ഒന്ന് രണ്ട് കോണികളൊക്കെ കയറുമ്പോള് തന്നെ പെട്ടെന്ന് കിതച്ചിട്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി പിന്നെ ഡെയ്ലി ഇത് ഓടി ഫിറ്റ്നസൊക്കെ വീണ്ടെടുത്തപ്പോള് നല്ല ഉന്മേഷം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ആവേശമൊക്കെ തോന്നിയിട്ടുണ്ട്